എൻറ്റെ ഏറ്റോം നല്ല നെയ്ബർഹൂഡെന്ന് പറയുന്നത് ഹുസ്ന മിന്നത്ത് ഷാന റിൻഷാ ജാസ്മിൻ ആണ് എനിക്ക് ഏറ്റോം നല്ലൊരു നെയ്ബർഹുഡാണ് ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ടുള്ള എൻറ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവർ എന്ത് കാര്യത്തിന് വേണമെങ്കിലും എനിക്ക് എന്താവശ്യത്തിനു വേണമെങ്കിലും അവരെ സമീപിക്കാനും അവരെനിക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തുതരാനും എൻറ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം അവരോട് പാസ് ചെയ്യാനും അവരതിനുള്ള എല്ലാ എന്നെ മോട്ടിവേഷൻ ചെയ്യാനും എല്ലാ കാര്യത്തിനും അവരുതന്നെ ഏറ്റോം ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരുതന്നെയാണ് അയൽവക്കക്കാരുള്ളത് എൻറ്റെ നെയ്ബർഹുഡ്ഡ് എല്ലാവരും തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എനിക്കെന്താവിശ്യം വന്നാലും അവർ ഏതു ടൈമിലാണെങ്കിലും അവരുണ്ടാകും അവർ ആ ഞങ്ങളിത്രേ ആൾക്കാരാണ് കമ്പി അത്രേം ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ നെയ്ബർഹുഡായിട്ടുള്ളത്